ആ വരൂ സാറെ വരൂ ഇരിക്കൂ ആ ആ ആ ആ ആ ബർത്ത്ഡേ അല്ലേ എന്നാണ് പ്രോഗ്രാം സാറെ ആ ആ എന്നാണ് ഏത് ദിവസം ആ ആ അപ്പോൾ അപ്പോൾ സർ എങ്ങനെ ഉദ്ദേശിക്കുന്നത് ഫുഡ് ആണോ ഡെക്കറേഷൻ ആണോ ആ ആ നമ്മൾ ഇതിപ്പോൾ എല്ലാം നമ്മള് എല്ലാവർക്കും ചെയ്യാറുണ്ട് റിസെപ്ഷൻ ചെയ്യാറുണ്ട് കല്യാണം പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി ആ അതുപോലെ തന്നെ അങ്ങനെ എല്ലാം ആ എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് എല്ലാം വർക്ക് എടുത്തിട്ട് ആ ഇതിപ്പോൾ നമ്മള് ബർത്ത്ഡേ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫുഡും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റേജ് ഡെക്കറേഷൻ ട്രീറ്റ് ബാക്കി ഉള്ളതു സംഗതി കേക്ക് മൊത്തത്തില് നമ്മള് കൊട്ടേഷൻ എടുക്കാറുണ്ട് മൊത്തത്തില് ഇപ്പോൾ നമുക്ക് പുറമേയ്ക്ക് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇവൻ്റ് മാനേജ്മെൻ്റിൽ ഫുഡും ഇതൊക്കെ കൂടെ ആകുമ്പോൾ ഇപ്പോൾ ഡീസകൌണ്ട് ഉണ്ട് നമ്മൾ ഫുഡും ഡെക്കറേഷൻ ഒക്കെ ആകുമ്പോൾ പുറമെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്ലെയ്റ്റിനു ഡെക്കറേഷനും ഫുഡും കൂടി ആകുമ്പോൾ ഒരു ഒരു പ്ലെയ്റ്റ് പർ പ്ലെയ്റ്റ് അഞ്ഞൂർ രൂപ വെച്ചിട്ടാണ് വാങ്ങുക ആ നമ്മൾ ഇപ്പോൾ നമ്മള് കുറച്ച് ഓഫറൂം ഇതൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഈ ഫീല്ഡ് ഭയങ്കര കോംമ്പപറ്റീഷൻ ആയതുകൊണ്ട് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് നാന്നൂറ് രൂപക്ക് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതേ അതേ എല്ലാം വരും സ്റ്റേജ് സ്റ്റേജിൻ്റെ അത് വരും എല്ലാം അതില് നമ്മൾ ഇപ്പോൾ ബർത്ഡേ ആയത്കൊണ്ട് കുട്ടിക്ക് ഉള്ള കേക്ക് കോംപ്ലിമെൻ്റായിട്ട് നമ്മൾ അത് കേക്ക് ഒരു മൂന്ന് കിലോയുടെ കേക്ക് കോംപ്ലിമെൻ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ആണ് പുറമെ നിന്ന് ഈ ഓഫർ കിട്ടില്ല കല്യാണം ഇതേപോലെ തന്നെ നമ്മൾ ഫുഡ് ആയിട്ട് എടുക്കണുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നുണ്ട് സ്റ്റേജ് എടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഉള്ള ഒരു വണ്ടികളെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് പോകാനുള്ള വണ്ടികളുടെ അത് പിന്നെ ഫുഡിൽ ആകുമ്പോൾ നോൺ നോൺ വെജ് അങ്ങനെയുള്ളത് പിന്നെ ഐസ് കാർവിങ് എല്ലാം എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേ അതേ അതേ അതേ അതേ അതേ ഇപ്പോൾ മറ്റെ ഫുഡിൻ്റെ എടുക്കുമ്പോൾ നമ്മൾ അതിനൊപ്പം തന്നെ സർവീസ് ചാർജ്ജ് ഒക്കെ ഉണ്ടല്ലോ മറ്റെ കാറ്ററിങ്ങിൽ ഉള്ള അവർക്കൊക്കെ പുറമെ അതൊക്കെ അഞ്ഞൂർ രൂപ വെച്ചിട്ടാണ് വാങ്ങുന്നത് നമ്മൾ ഒരു നാന്നൂർ രൂപയ്ക്ക് ആണ് അത് കൊടുക്കുന്നത് അതില് പിന്നെ നമ്മൾ ഔട്ട്ഡോർ നമ്മൾ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ചെയ്യും ചിലപ്പോൾ ഔഡിറ്റോറിയത്തിന് അകത്ത് വച്ചിട്ട് ആകുമ്പോൾ മഴ ഇതൊക്കെ വന്നാൽ വലിയ പ്രശ്നം ഇല്ല പക്ഷേ ഔട്ട്ഡോർ ഈ മഴ ഒരു പ്രശ്നം ആണ് പക്ഷേ ഔട്ട്ഡോർ ആകുമ്പോൾ കാണാൻ ഒരു നീറ്റ്നെസ്സ് ഉണ്ടാകും അതേ അതേ മഴ കാലം അല്ലെങ്കിൽ നീറ്റ് ആയിരിക്കും നമ്മൾ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളുടെ നോർത്ത് ഇന്ത്യൻ കല്യാണം പോലെ ഉണ്ടാവും ആ അതാണ് കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഔട്ട്ഡോർ ആണ് ചെയ്യുന്നത് ഇപ്പോൾ മണ്ഡപങ്ങളെക്കാളും കൂടുതൽ ഔട്ട്ഡോർ ആണ് ചെയ്യുന്നത് ആ ആ ആ മതി മതി അങ്ങനെ ആണെങ്കിൽ നമ്മൾ താഴെയ്ക്ക് മേശ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ലൈറ്റ് ലൈറ്റ് അറങ്ങേമെൻ്റ്സ് ഒക്കെ ചെയ്തിട്ട് ആർച്ച് വെക്കണം നമുക്ക് ഒരു എൽ ഇ ഡി ആർച്ച് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കാം ഉണ്ട് ഉണ്ട് നമ്മളുടെ കയ്യിൽ ഉണ്ട് ഞാൻ അത് കാണിച്ച് തരാം കാണിച്ച് തരാം ഓ ശരി അങ്ങനെ ആണെങ്കിൽ മതി അങ്ങനെ ആണെങ്കിൽ വരാം ആ ഞാൻ അയച്ചു തരാം അയച്ച് തരാം നംബർ ഇത് തന്നെ ആ ആ നമ്പർ ഒന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ കാർഡ് ഈ കാർഡ് ഈ കാർഡിൽ രണ്ടാമത്തെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ആ ഞാൻ ഞാൻ അപ്പോൾ അതിലേക്ക് അയച്ച് ഇടാം ആ അതിപ്പോൾ ഒരു രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് മിനിമം ഒരു രണ്ടു ദിവസത്തിന് മുമ്പ് എങ്കിലും പറഞ്ഞാലെ നമുക്ക് നടക്കുകയുള്ളൂ ഒന്നു റെഡി ആക്കാൻ പറ്റുളളു മതി മതി മതി ശരി ശരി ശരി ഒക്കെ സർ ശരി സർ നമ്മൾ ചെയ്ത് തരും നമ്മൾ മാക്സിമം ഡീസ്കൌണ്ട് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് എന്നാലും നമ്മൾ എന്തെങ്കിലും നമുക്ക് പറ്റുന്നപോലെയൊക്കെ നമുക്കൊന്ന് ചെയ്യാം ആ ശരി ആ ശരി സർ